പല കൃഷികളും പല മാസങ്ങളിലാണ് ഉണ്ടാകല് കുംഭ മാസത്തില് നെല്ലുണ്ടാകും കന്നിമാസത്തില് നെല്ലുണ്ടാക്കും പാടത്ത് വിളകളുണ്ടാക്കല് കന്നിമാസത്തിലും കുംഭമാസത്തിലും പിന്നെ വാഴയുണ്ടാക്കും പിന്നെ എല്ലാ കാലവും വിള ഉള്ളത് തേങ്ങയാണ് അടയ്ക്ക കന്നിമാസത്തില് വൃശ്ചിക മാസത്തിലൊക്കെയാണ് ഉണ്ടാവല് മഴക്കാലത്താണ് മഴക്കാലത്ത് നെല്ലുണ്ടാക്കും

ആ മാങ്ങയുണ്ടാവും ഇടവ മാസത്തില് മകരമാസ മേട മാസത്തില് മാങ്ങ പൊഴുക്കും ചക്ക ഉണ്ടാവും കുംഭ മാസത്തില് വെള്ളോ വെള്ളമുണ്ടാവും വെള്ളം മഴവെള്ളം എല്ലാം മഴക്കാലത്ത് നല്ല മഴയുണ്ടാവും നല്ല വെള്ളമുണ്ടാവും വെള്ളം കയറും